ഓ മലയാളത്തില് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ എഴുതുമ്പോൾ ഉണ്ട് പ്രശ്നമുണ്ട് എഴുതുമ്പം പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ മൂന്ന് വർഷം മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ അല്ലാതെ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു അപ്പോൾ ഞാൻ ഈ മലയാളം മൂന്ന് വർഷമേ ആകെ പഠിച്ചിട്ടുള്ളൂ അപ്പം ഇങ്ങനെ പഠിച്ചതുകൊണ്ട് എനിക്കത് വലുതായിട്ട് എനിക്ക് അത്ര ഒരു സ്പീഡിൽ എഴുതാൻ പറ്റില്ല അത്ര വേഗത്തിൽ എഴുതാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പിന്നെ നേരിടുന്നുണ്ട് പിന്നെ ഞാൻ എഴുതും അത് പക്ഷേ ഭയങ്കര പതുക്കെ എഴുതാൻ പറ്റുള്ളൂ ഈ ന ഒന്നൊന്നായിട്ട് നോക്കി അങ്ങനെ എഴുതാൻ പറ്റൂ പിന്നെ പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എഴുതുമ്പോൾ അത്ര വൃത്തി ആയിരിക്കില്ല എഴുതുമ്പം അക്ഷരങ്ങൽ ഇങ്ങനെ അത്ര ശീ എഴുതി ശീലം ഇല്ലാത്തതുകൊണ്ട് അത്ര വൃത്തി ആയിട്ടല്ല എഴുതുന്നത് പിന്നെ മലയാളം സംസാരിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഒരു തിരുവനന്തപുരം ഭാഷ ശൈലി ചിലപ്പം കയറിവരും എന്തര് എന്തോന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കയറി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലാതെ സംസാരിക്കുമ്പം വലിയ കുഴപ്പമില്ല പക്ഷേ മറ്റേ നമ്മൾ എഴുതുമ്പം എനിക്ക് പക്ഷേ പ്രശ്നമുണ്ട് എഴുതുമ്പം അത്ര എഴുതി ശീലം ഇല്ലാത്തതുകൊണ്ട് അത്ര സ്പീഡ് ഇല്ല പിന്ന പതുക്കെ പതുക്കെ എഴുതാൻ പറ്റുള്ളൂ പിന്നെ ചിലപ്പം അക്ഷരത്തെറ്റ് വരാനുള്ള സാധ്യത ഒക്കെയുണ്ട് അക്ഷരത്തെറ്റ് അത്ര എഴുതി എന്നും എഴു എഴുത്തില്ലല്ലോ ആകെ മൂന്ന് വർഷം പഠിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ എഴുത്ത് കുറവായതുകൊണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് അതേ ഉള്ളൂ ഇത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല